എനിക്കിഷ്ടപ്പെട്ട മത്സ്യങ്ങൾ ഏതൊക്കെയെന്ന് വെച്ചാൽ മത്തി മാന്തൾ ചെമ്മീൻ സൂത അങ്ങനെ നെത്തൾ അങ്ങനെ കുഞ്ഞു കുഞ്ഞു മീനുകളെയാണ് എനിക്കിഷ്ടം സാധാരണ ആൾക്കാർക്ക് കഴിക്കാൻ ഇവിടെ വേറെ എൻ്റെ വീട്ടിൽ തന്നെ വേറെ നോക്കുകയാണെങ്കിൽ ഏട്ടാ അയില അങ്ങനെയൊക്കെ അങ്ങനെ മത്തി അങ്ങനെയൊക്കെ കഴിക്കാനാണിഷ്ടം ഓരോരുത്തർക്കും അവരവരുടേതായ ഇഷ്ടങ്ങളാണ് ചിലർക്ക് കുഞ്ഞുമീനുകൾ കഴിക്കാനായിരിക്കും ഇഷ്ടം ചിലർക്ക് വലിയ മീനുകൾ കഴിക്കാനായിരിക്കും ഇഷ്ടം ചിലർക്ക് കഷ്ണം മീൻ കഴിക്കാനായിരിക്കും ഇഷ്ടം അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ് നമുക്ക് എനിക്കിവിടെ ഇഷ്ടം കുഞ്ഞുമീനുകൾ കഴിക്കാനാണ് അതിങ്ങനെ വറുത്തിട്ട് കഴിക്കാനാണ് എനിക്കിഷ്ടം